ഒരു പുസ്തകം പൂർത്തിയാക്കാൻ ഒരു സാധാരണക്കാരന് എനിക്ക് തോന്നുന്നു അധികം സമയമൊന്നും എടുക്കേണ്ടവരില്ല കാരണം ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് വായിച്ചോണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ കൂടി ബുക്കിൻ്റെ ഇൻറ്ററസ്റ്റ് അല്ലെങ്കിൽ ബുക്കിലുള്ള ആ ഒരു തീം എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ വിഷയത്തിനെ സംബന്ധിച്ചിരിക്കും നമ്മുടെ വായനയുടെ സ്പീഡ് കാരണം ചിലർക്ക് നല്ല ഇൻറ്ററസ്റ്റഡ് ആയിട്ടുള്ളൊരു ബുക്കാണ് കിട്ടുന്നതെങ്കിൽ അവരത് വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ അതിപ്പോൾ വായനാശീലം ഉള്ള ഉള്ളവരാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും വളരെ ഈസിയായി വളരെ ഫാസ്റ്റായിട്ടത് വായിച്ച് തീർക്കും പക്ഷേ അതേ സമയം ഒരു ഇൻറ്ററസ്റ്റില്ലാത്ത അല്ലെങ്കിൽ നമുക്ക് ഒട്ടും താല്പര്യമില്ലാത്ത ഒരു വിഷയത്തിനെപറ്റിയിട്ടുള്ള ഒരു ബുക്കാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമ്മള് ചിലപ്പോൾ ഒന്നോ രണ്ടോ പേജ് ഒരു ദിവസം വായിച്ച് നമ്മൾ പിന്നീടാക്കാം അല്ലെങ്കിൽ പിന്നീട് വായിക്കാം എന്നുള്ള രീതിയില് അതവിടെ വിട്ടുപോകും പിന്നെ നമുക്ക് എത്ര നമ്മൾ എത്രത്തോളം നമ്മള് വിചാരിച്ചാലും നമ്മുടെ മനസ് നമ്മളെ അതിനു സമ്മതിക്കില്ല വായിച്ച് കംപ്ലീറ്റാക്കാനായിട്ട് നമ്മളെ സമ്മതിക്കില്ല അതിന് കാരണം എന്നു പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ഇൻറ്ററസ്റ്റാണ് സൊ നമ്മൾ ബുക്കുകൾ സെലെക്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇൻറ്ററസ്റ്റഡ് ആയിട്ടുള്ള രീതിയിലുള്ള സബ്ജക്റ്റ് കിട്ടുന്ന ഏതെങ്കിലും ബുക്ക് സെലക്ട് ചെയ്ത് അങ്ങനെ വായിക്കുകയാണെങ്കിൽ നമുക്ക് ഈസിയായിട്ട് കംപ്ലീറ്റാക്കാം എനിക്ക് തോന്നുന്നു ഒരു സാധാരണക്കാരനൊക്കെയൊരു അത്യാവശ്യം ലെങ്ത്ത് ഉള്ള ഒരു ബുക്കൊക്കെയാണെങ്കില് ഒരു രണ്ടാഴ്ച്ച കൊണ്ടൊക്കെ സുഖമായിട്ട് വായിച്ച് തീർക്കാൻ കഴിയും ഇനി ഇൻറ്ററസ്റ്റ് ഇല്ലാത്ത രീതിയിലുള്ള സ് അങ്ങനത്തെ ബുക്സക്കെയാണെങ്കിൽ തന്നെ അതിനൊരു ഒരു ഓരോ ദിവസവും ഇത്ര പേജ് വെച്ച് ഒരു ദിവസം ഞാൻ ഒരഞ്ച് പേജ് വെച്ച് വായിക്കും അല്ലെങ്കിൽ ഒരു പത്ത് വച്ച് പേജ് വെച്ച് വായിക്കും എന്നുള്ള രീതിയിൽ ഒരു ടാർജെറ്റ് കൊണ്ടുവന്നിട്ടത് വായിക്കുവാണെങ്കിൽ കുറച്ചും കൂടി എഫേർട്ട് ലെസ്സ് ആയിട്ട് നമുക്കത് വായിച്ച് തീർക്കാം ഒരു ഒറ്റ സ്ട്രെച്ചിൽ വായിച്ചു തീർക്കുന്നതിനേക്കാളും നല്ലത് അങ്ങനെ വായിച്ചു തീർക്കുവാണെങ്കിൽ നമ്മുടെ ആ ഒരു സ്ട്രെസ്സും അതൊക്കെ റീലീഫാക്കി നമുക്ക് നോർമലായിട്ടത് വായിച്ച് തീർക്കാൻ കഴിയും